നമുക്കെന്നു വെച്ചാൽ കല എന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് കലകളുണ്ട് കാരണമെന്നു വെച്ചിട്ടുണ്ടങ്കില് പിന്നെ നമുക്ക് കുച്ചുപ്പുടിയുണ്ട് നാടോടിനൃത്തമുണ്ട് ഭാരതനാട്യമുണ്ട് അങ്ങനെ ഒരുപാട് കലകളുണ്ട് കഥകളി ഓട്ടംതുള്ളൽ ചാക്യർക്കൂത് ഒരുപാട് കലകളുണ്ട് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യവുമാണ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ അതായത് ഇവർക്കുള്ള ഡ്രസ്സ് ഇവരുടെ മുഖത്തിന് ചായം മാല വള പൊട്ട് അങ്ങനെയുള്ളതൊക്കെ എടുക്കാനുള്ള ആർട്ട് ആർട്ട് സപ്ലൈസ് സ്റ്റോർസൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കത് വെ അല്ല നമുക്ക് അത് വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാം വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാം അതിനുള്ള വലിയ ഒരു നമുക്ക് ഇവിടെതന്നെ നമുക്ക് അവൈലബിളാണ് എല്ലാം നമുക്ക് എ ടു സഡ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്നു തന്നെ കിട്ടാൻ കിട്ടുന്നതിന് ഒരു കട നമുക്ക് ഇവിടെ ലഭ്യമാണ് അതിലെ സ്റ്റേഷനറി സ്റ്റോറുകളും അങ്ങനെ എല്ലാ സ്റ്റോറുകളും നമുക്ക് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല